നമ്മുടെ സംസ്കാരത്തിലെ പ്രധാന തൊഴില് കൃഷിയെ സംബന്ധിച്ച് കൃഷിയെ ആണ് കൂടുതലും നമ്മൾ സമീപിക്കുന്നത് കാരണം പക്ഷെ ഇത് ആളുകൾ ഇത് ഇപ്പോൾ ഈ ഇന്നത്തെക്കാലത്ത് അത് പ്രായോഗികമല്ലാത്ത രീതിയിലായി പോവുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കലാവസ്ഥ തന്നെ കാലാവസ്ഥ നല്ല ഇപ്പം മഴ പെയ്യേണ്ട സമയത്തല്ല ഇപ്പം മഴ പെയ്യുന്നത് അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടേണ്ട മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടുകയോ വെയിൽ കൊള്ളേണ്ട സമയത്ത് വെയിൽ കൊള്ളുകയും മഞ്ഞ് കൊള്ളണ്ട സമയത്ത് മഞ്ഞ് കൊള്ളുകയോ അങ്ങനെ ഉള്ളതൊന്നും നല്ല ഇതില് കിട്ടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴെത്തെ അത് നമ്മുടെ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ഗവണ്മെന്റില്നിന്നും കൃഷിക്കുള്ള ആനുകൂല്യങ്ങള് കിട്ടാനുള്ള താമസം കാരണം ഒരുവന് സാമ്പത്തികമായും സ്വന്തമായിട്ട് ചെയ്യാന് കഴിവില്ലാതെ ഗവണ്മെന്റ് സഹായിച്ച് ഗവണ്മെന്റില്നിന്നും വായ്പ്പ എടുത്തോ അങ്ങനെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ വായ്പാരീതി അതായത് പൈസ കിട്ടാനുള്ള താമസം നമ്മൾ ഉദേശിക്കുന്ന രീതിയിൽ പൈസ ലഭിക്കാത്ത തടസങ്ങൾ അപ്പം അതൊക്കെ നമ്മുടെ സമയത്ത് കൃഷി ഇറക്കാൻ പറ്റാതെയും ഒക്കെ ചെയ്യാൻ പറ്റാതെയൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറ കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല കൂടുതലും അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും വൈറ്റ് കളര് ജോബ് ആണ് എല്ലാവര്ക്കും ഇഷ്ടം എന്ന് എല്ലാവരും ഓഫീസ് വര്ക്ക്കളിലേക്കും പുറത്ത് പോയി ജോലി ചെയ്യാനും ഒക്കെയാണ് എല്ലാവര്ക്കും താല്പ്പര്യം പണ്ടത്തെപ്പോലെ കൃഷി ചെയ്യാനായിട്ട് ആരും താല്പ്പര്യം കാണിക്കുന്നില്ല ഇപ്പോള് പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവര് കൂടുതലും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്ത്തന്നെ നില്ക്കാതെ പുറത്തേക്ക് പോയി എന്ത് ജോലി ചെയ്തും ജീവിക്കാന് അവര്ക്ക് ഒരുക്കമാണ് നമ്മുടെ ഇവിടെ നാട്ടിലൊരു ജോലിയും ചെയ്യാനായിട്ട് അവര്ക്ക് സാധിക്കാ താല്പ്പര്യം ഇല്ല താല്പ്പര്യം ഇല്ലാത്ത മെയിന് കാരണം ഇത് തന്നെയാണ് അവര്ക്ക് അതിന് അര്ഹമായ കൂലി ലഭിക്കുന്നില്ല അര്ഹമായ നേട്ടം അവര്ക്ക് കിട്ടുന്നില്ല അങ്ങനെയെക്കെ ആവുമ്പം വലിയ നഷ്ടത്തിലേക്ക് കൃഷി ചെയ്യുന്നത് നമ്മളെ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നത് കാരണം മനുഷ്യര്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യാനുള്ള താല്പ്പര്യം കാണിക്കാതെ ആളുകള് പുറകോട്ട് മാറുന്നത് നമ്മുടെ സംസ്കാരത്തെ കൂടുതലായിട്ടും നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്നുണ്ട് അപ്പം ശരിക്കും കൃഷി ഒരു നല്ല ഒരു തൊഴില്മാര്ഗം തന്നെയാണ് പണ്ടത്തെക്കാലത്ത് സ്വന്തമായിട്ട് എല്ലാ വീടുകളിലും സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്ത് ആഹാരസാധനങ്ങള് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടില്ത്തന്നെ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാകുന്ന ആഹാര ങ്ങൾ തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ കൂടുതലും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന പച്ചക്കറികൾ ആണെങ്കിലും അരിയാണെങ്കിലും ഗോതമ്പ് ആണെങ്കിലും എല്ലാം പുറത്തുനിന്ന് കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നുണ്ട് കാരണം ഇത് നമ്മള് സ്വന്തമായി കൃഷി ചെയ്യുമ്പോഴ് ഉണ്ടാകുന്നതും മറ്റൊരു അയാളുടെ അടുക്കൽനിന്ന് കൃഷി ചെയ്ത് ആ സാധനം ഇവിടെ എത്തിക്കുന്നതും എല്ലാം അത് വ്യത്യാസമുണ്ടെന്ന് തന്നെ ഞാന് കരുതുന്നു പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിന് ആ ഒരു രീതിയോട് നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു സംതൃപ്തി തോന്നാറുണ്ട് ഞാന് അധ്വാനിച്ചുണ്ടാക്കിയാതാണ് എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് തോന്നാറുണ്ട് അപ്പോള് ഇതാണ് മെയിന് വിഷയം ഇന്ന് ജോലി ചെയ്യാനായിട്ട് കൃഷി ചെയ്യാനായിട്ട് നമ്മളെ നമ്മുടെ ഭൂമി അതിനായിട്ട് ഉഴുത് മറിച്ച് അവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇപ്പോഴത്തെ തലമുറക്ക് ചെയ്യാന് പോലും അറിയത്തില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് പക്ഷെ എത്രയാണെങ്കിലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്ത് ഒത്തിരി കാര്യങ്ങള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാന് വിശ്വസിക്കുകയാണ് പുതിയ തലമുറയെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് കൃഷിയുടെ ആ ഒരു പ്രധാന്യത്തെക്കുറിച്ച് അവര്ക്ക് മനസ്സിലാക്കിയും അതിനുള്ള സഹായം ഗവണ്മെന്റില്നിന്ന് തന്നെ അവര്ക്ക് അത് അതിനുള്ള സഹായങ്ങൾ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു നല്ല ഒരു സംസ്കാരം നമ്മുടെ നാടിന് ഉണ്ടാകട്ടെയെന്നും ഞാന് പ്രാര്ത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്